എന്നെ സംബന്ധിച്ച് ഞാൻ കൂടുതലും വായിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ടിൻറ്റു മോൻ്റെ കോമഡികൾ ചെറിയ ഒരു വ്യക്തിയാണെങ്കിൽ പോലും വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ് ടിൻറ്റു മോൻ കുഞ്ഞില് ചെറുപ്പം മുതൽ ഞാൻ വായിച്ചിട്ടുള്ളൊരു ഒരു കഥയാണ് ടിൻറ്റു മോൻ്റെ ജോക്കുകൾ കുഞ്ഞ് കൊച്ചുങ്ങൾ മുതൽ മധ്യവയസ്കർ മുതൽ മുതിർന്നവർ വരെയുള്ള എല്ലാ വ്യക്തികൾക്കും മനസ്സിലാക്കത്തക്ക രീതിയിലും ഗ്രഹിക്കത്തക്ക രീതിയിലും ചിരിക്കത്തക്ക രീതിയിലുമുള്ള ഹാസ്യ രൂപത്തിലാണ് ടിൻറ്റു മോൻ്റെ ജോക്കുകൾ ഉള്ളത് അത് സ നമ്മുടെ ദൈനം ദിന ജീവിതത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കോമഡികളാണ് കൂടുതലായിട്ടും ടിൻറ്റു മോൻ്റെ പുസ്തകത്തിൽ കാണാറുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലായിരുന്നാൽ പോലും ചിരിച്ചു പോകുന്ന അല്ലെങ്കിൽ പൊട്ടി കരയുന്നൊരു വ്യക്തിയായിരുന്നാൽ പോലും പെട്ടെന്നു ചിരിക്കുന്ന ഒരു കോമഡി താരമാണ് നമ്മുടെ ടിൻറ്റു മോൻ സ്ട്രക്ച്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒരു കോമഡി താരമാണ് നമ്മുടെ ടിൻറ്റു മോൻ പക്ഷേ അദ്ദേഹത്തിൻ്റെ കോമഡികൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും നമ്മളറിയാതെ തന്നെ നമ്മൾ ചിരിച്ച് പോകുകയും നമ്മുടെ കണ്ണിൽ നിന്നു വെള്ളം വരികയും ചെയ്യുന്നു കാരണം അത്രക്ക് ആസ്വാദ്യകരവുമാണ് അദ്ദേഹത്തിൻ്റെ ടിൻറ്റു മോൻ്റെ കോമഡികൾ ഒരു കോമഡി മറ്റു കോമഡിയുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഓരോന്നും ഓരോ വ്യത്യസ്ത രീതിയിലുള്ളതാണ് ടിൻറ്റു മോൻറ്റേത് എല്ലാം ഓരോ പുതുമ നിറഞ്ഞതാണ് ടിൻറ്റു മോൻറ്റേത് ചിലതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും കോമഡികൾ ആയാൽ പോലും തന്നെ അത് നമ്മുടെ ഒന്നവിടെ നോക്കുമ്പോൾ ചിലതൊക്കെ നമ്മുടെ ജീവിതമായിട്ട് സാമ്യമുള്ളതായി നമുക്ക് തോന്നും അങ്ങനെ ചിലപ്പോഴൊക്കെ നല്ല നമ്മുടെ നമ്മളെ സംബന്ധിക്കുന്നത് ചിലത് ജോക്ക് രൂപത്തിൽ അല്ലെങ്കിൽ കോമഡി രൂപത്തിലൊക്കെ അത് അവതരിപ്പിക്കുന്നുണ്ട് ആർക്കും തന്നെ വായിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ജോക്കുകളാണ് ടിൻറ്റു മോൻറ്റേത് വളരെ ഹ്രസ്വമായ രീതിയല്ല പക്ഷേ വളരെ ഷോർട്ട് ഷോർട്ടായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ജോക്കുകളെല്ലാം ഉള്ളത് സത്യം പറഞ്ഞാൽ എല്ലാ വ്യക്തികളെയും ചിരിപ്പിക്കാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് ടിൻറ്റു മോൻറ്റേത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് ടിൻറ്റു മോൻ നല്ല ഹാസ്യനാണെങ്കിൽ പോലും ചിരിച്ച് ചിരിച്ച് നമുക്ക് മടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ടിൻറ്റു മോൻ്റെ ജോക്കുകൾ ഉള്ളത് ഇനിയും അയാൾക്കു ഭാവിയിലും ഇങ്ങനെ ടിൻറ്റു മോൻ്റെ പുതിയ പുതിയ ജോക്കുകൾ ഉണ്ടാകട്ടെ എന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെയും പുതിയ പുതിയ ജോക്കുകളും കേൾക്കാത്തതായിട്ടുള്ള ജോക്കുകളും കേൾക്കാനും ഭാവിയിൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു